പക്ഷി നിരീക്ഷണം നടത്തുമ്പോൾ പക്ഷികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് യുട്യൂബിലോരോ വീഡിയോകൾ കാണാറുണ്ട് പിന്നതുപോലെ ഫോട്ടോസും നോക്കാറുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സുണ്ടെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞ് തരും ഇപ്പം നമുക്കറിയിലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടാണല്ലോ ചോദിക്കുക അപ്പം അവർ പറഞ്ഞ് തരും എന്ത് പക്ഷിയാണ് പിന്നെ ഇപ്പം നമ്മൾ സൂവിലൊക്കെ പോകുകയാണെങ്കിൽ പക്ഷി നിരീക്ഷണങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയെഴുതിയിട്ടുണ്ടാകും അതെന്ത് തരം പക്ഷിയാണ് അതിൻ്റെ ഭക്ഷണം എന്താണ് അതെങ്ങനെയാണ് ജീവി കഴിയുന്നത് അത് എങ്ങനെയാണ് പറക്കുന്നത് അതൊക്കെ അടിയിലെഴുതിയിട്ടുണ്ടാകും ഇതുപോലെ നമുക്കറിയാത്ത പക്ഷികൾ നമ്മൾ ആരോടെങ്കിലും ചോദിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ആപ്പുകളിലും പിന്നതുപോലെ യൂട്യൂബിലാണ് കൂടുതലും നോക്കാറ് ഗൂഗിളിൽ സെർച്ച് ചെയ്യും അങ്ങനെയാണ് നോക്കാറ് പിന്നെ എന്തെങ്കിലും മറ്റുള്ളവരുടെ മറ്റുള്ളവരിൽ നിന്നും നമുക്ക് അറിവുണ്ടാകുമല്ലോ അപ്പോൾ ഇത് ഇപ്പോൾ ഒരുപാട് പക്ഷികളുണ്ട് വേഴാമ്പൽ പിന്നതുപോലെ മയിലുകളുണ്ട് വെള്ള മയിലുണ്ട് അതുപോലെ ആൺ പെൺ മയിലുകളുണ്ട് പിന്നെ പേ അതുപോലെ കൊക്ക് പലതരത്തിലുള്ള ചെറിയ തത്തകളുണ്ട് ഇപ്പം ചെറിയ ചെറിയ കിളികളുണ്ട് അതുപോലെയുള്ള പല തരത്തിലുള്ള കി പക്ഷികളുണ്ട് അപ്പം നമുക്ക് ഈ പക്ഷികൾ ഒക്കെ തരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ നിന്നും പഠിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഫോട്ടോസിൽ നിന്നും അതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട് സെർച് ചെയ്തിട്ടാണ് കൂടുതലും നോക്കിക്കാണാറ്